ഹലോ അതെ സ്റ്റേറ്റ് ബാങ്കാണ് ഗുഡ് മോർണിംഗ് ആരായിരുന്നു ഓക്കെ ഗോൾഡ് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രോസിജേർസ് അധികമുണ്ട് അപ്പോൾ അത് നേരിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ പി നാളെ നാളെ വരികയാണെന്ന് ഉണ്ടെങ്കിൽ താങ്കളുടെ ആധാറിൻ്റെ കോപ്പി രണ്ട് ഫോട്ടോ ഇവിടെ അക്കൗണ്ട് ഉള്ളതാണോ ഓൾറെഡി ആ അപ്പോൾ അതിൻ്റെ പാസ്സ്ബുക്ക് പിന്നെ പാൻകാർഡിൻ്റെ കോപ്പി ഇത്രയായിട്ട് വരണം പിന്നെ നമുക്ക് വസ്തു ഇത്ര ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് വേണം കൊണ്ടുവരണം നാളെ പത്തുമണി തൊട്ട് ബാങ്ക് ഓപ്പൺ ആണ് ഇപ്പം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ബാങ്ക് മാനേജരായിട്ടുള്ള ഞാനാണ് ചെയ്യുന്നത് ഞാൻ നാളെ പത്ത് മണിക്കെത്തില്ല ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ബാങ്കിലേക്ക് വന്നാൽ മതി ബാങ്ക് ആ ഓക്കെ ഓക്കെ അപ്പത്തേനും ഞാൻ അവിടെ ഉണ്ടാകും ബാങ്ക് എവിടെ ആണെന്ന് അറിയാമോ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തേക്കുവോ ആ ഓക്കെ എന്നാൽ താങ്ക്യൂ